ആ ഹൗസ് ഓണർ ഇല്ലേ ആ ഞാൻ മിഥുനായിരുന്നു ആ പറയാൻ നല്ല രീതിയിലുള്ള ഇതൊന്നു അല്ല പറയാനുള്ളത് ഇതെന്തോ പരിപാടിയാണ് കറണ്ട് കറണ്ടെങ്കിലും ബേസിക്കായിട്ട് കിട്ടുവെങ്കിൽ വേണ്ടീല ഇത് ഇരുപത്തിനാല് മണിക്കൂറും കറണ്ടും കാണത്തില്ല എന്നിട്ട് കൊതുക് കടിയും കൊള്ളണം ചുമ്മാതെ പൈസ എണ്ണി തരുന്നത് ചുമ്മാതെ ഒരു ഒരുമാതിരി പരിപാടികൾ കാണിച്ചു വച്ചേക്കുന്നു എന്നാലും ഇൻവെട്ടർ ഉണ്ടെങ്കിൽ ഇൻവെട്ടർ പോലും ഒന്ന് ഓണാക്കത്തില്ലല്ലോ ചൊവ്വേ നേരെ അതും എന്നേ അടിച്ചു പോയി കിടക്കുവ അതൊന്ന് ശരിയാക്കാൻ പറഞ്ഞാൽ ശരിയാക്കുവോ അതും ഇല്ല ബാക്കിയുള്ള സാധാരണ വീട് വീട് വീട് അ അ വേണ്ടാന്ന് വെച്ചിട്ട് ഇതാവുമ്പോൾ ഇൻവെർട്ടറും എല്ലാ ഫെസിലിറ്റിയുണ്ടല്ലോന്ന് വിചാരിച്ചാണ് ഇരുപത്തയ്യായിരം രൂപ ഇത്രയും എണ്ണി പെറുക്കി ബാക്കിയിള്ളേടത്തൊക്കെയാണെങ്കിൽ നല്ല സ്ഥലത്ത് കിട്ടാനില്ലാഞ്ഞിട്ടല്ല എന്നിട്ടും പോട്ടെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നത് ബാക്കി ഉള്ളെടുത്തെല്ലാം ഇരുപതിനായിരം ഇരുപതിനായിരത്തിനകത്ത് തന്നെ കിട്ടും നില്ല് ഒന്ന് പറഞ്ഞോട്ട് പറഞ്ഞോട്ട് പറഞ്ഞോട്ട്

പ്രശ്നമെന്തുവാണ് ബേസിക്കയിട്ട് ഉള്ള ഒരു വക ഇല്ലതാനും വെള്ളം തന്നെ തീർന്നു പോയാൽ പിന്നെ പുതിയത് റീഫില്ല് ചെയ്യാൻ പറഞ്ഞ കേൾക്കത്തും ഇല്ല എന്നിട്ട് അല്ലാതായാലും ഓരോരോ കാര്യത്തിനു വേണ്ട രീതിയിൽ ചെയ്യത്തുമില്ല ഓരോ കാര്യത്തിന് എന്തേലും അത്യാവശ്യത്തിന് പറഞ്ഞ് പറഞ്ഞ് കുറെ നടക്കണം മോട്ടറ് വല്ലതും വെള്ളം വന്നാൽ വന്നുന്നുള്ള രീതിയിലാണ് ഇടക്ക് അതൊന്നും വന്ന് നോക്കാൻ പറഞ്ഞാൽ പോലും വന്ന് നോക്കത്തും ഇല്ല രതീശൊന്നും ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല

ഇനിയെന്താണ് ചെയ്യാൻ പറ്റുന്നത് സമയത്ത് സമയത്തെല്ലാം മാസം കറക്റ്റ് ആറാം തീയതി ആകുമ്പോൾ തന്നെ കൈ കിട്ടണമെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് അത് ഒരു ദിവസം താമസിച്ചാൽ കുഴപ്പം എന്നിട്ടെനിക്ക് വേണ്ട രീതിക്ക് ചൊവ്വാ നേരെ ചെയ്യത്തുമില്ല കറക്റ്റായിട്ട് തന്നായിരുന്ന് ആ ദിവസം തന്നെ വൈകിട്ട് കറക്റ്റ് ആ ദിവസം രാവിലെ രാവിലെ വിളിച്ചിട്ട് ഇതുവരെ ഇതുവരെയായിട്ട് പൈസ കിട്ടിയിട്ടില്ല കിട്ടിയില്ലാന്ന് പറഞ്ഞ് പിന്നെ ഉച്ചയായപ്പോൾ പിന്നേം പിന്നെം വിളിച്ച് വന്നു രാത്രി ഒരുതരത്തിൽ ഒപ്പിച്ചു തന്നായിരുന്നു ആ പതിനെണ്ണായിരം അല്ല കറക്റ്റ് ഇരുപത്തിഅയ്യായ്യിരം രൂപ എണ്ണി പെറുക്കി എണ്ണിയാണ് തന്നത് അക്കൗണ്ടിലോട്ടാണ് ഇട്ടു തന്നത് ഓർമ്മയില്ലയോ നോക്കീട്ട് ഇനി ഞാൻ അതിൻ്റെ സ്ക്രീൻ ഷോട്ടും തിരക്കി പോകണം കയ്യിലോട്ട് പൈസ പൈസ കി കിട്ടിയാൽ അ അ അന്നേരം ആണെങ്കിൽ വാട്സാപ്പിൽ ഇതുപോലെ കിട്ടിയൊന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ ഓക്കെ ഇടുകയും ചെയ്തല്ലോ എന്നിട്ടൊരു ഓർമ്മയില്ലെയോ ആ ഇനി അതെ ഇനി അതെയുള്ളൂ എ എനി ഇനി അതേയുള്ളൂ വേറെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേ അല്ലേലും മാറാൻ പോവുക

ആ പറഞ്ഞതെല്ലാം തള്ളി മറിച്ചതാന്ന് എനിക്ക് മനസിലായി ആ ഞാൻ എന്തായാലും നാളെ ത നാളെ ഈയാഴ്ച തന്നെ മാറുവാണ് ഈ മാസത്തെ ഈ മാസത്തെ എന്തുവായാലും മുഴുവൻ ഈ മാസത്തെ എന്തായാലും മുഴുവനായിട്ട് തരാൻ തരാൻ താല്പര്യമില്ല ഞാൻ ശരിയെന്നാൽ